അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പതിനോന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി ഏഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന്